ആ വരൂ ചേച്ചി ഇഷ്ടംപ്പോലെ പൂക്കളുണ്ട് ആ ഏതൊക്കെ പൂവാ വേണ്ടത് ചെണ്ടുമല്ലി കിലോ നൂറ്റമ്പത് രൂപയാണിപ്പോൾ മഞ്ഞച്ചെണ്ടുമല്ലിയുണ്ട് ഓറഞ്ച് ചെണ്ടുമല്ലിയുണ്ട് ആ നിങ്ങൾക്ക് ഇല്ലാ നല്ല പൂവാണ് നോക്കിക്കോളു നല്ല നല്ല പൂവാണ് ഫ്രഷ്പൂ പൂവാണ് അല്ലല്ല നല്ല പൂവാണ് നല്ല പൂവാണ് മ് ആ വലിയ പൂവാണ്

ആ ഇല്ല പൂ പൂക്കള് നല്ല പൂക്കളാണ് കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവില്ല ഒന്നും വരില്ല കേടുവരില്ല വാടിപ്പൂവൊന്നും ഇല്യ ഇത് ആ അരളി അരളി അരളി ആ

ആ ആ മ് ചെമ്പകമുണ്ട് വാടാമല്ലിയുണ്ട് ഉം തെച്ചിപ്പൂവുണ്ട് ആ ജമന്തിപ്പൂ പിന്നെ വാടാമല്ലിയിണ്ട് ഇല്ല കേടുവരില്ല ആ വാങ്ങിക്കാം കേടുവരില്ല ആ ആ മുവാ പിന്നെന്താ വേണ്ടത് തെച്ചിയുണ്ട് ആ തെച്ചിപ്പൂ കിലോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആ ഒന്നരക്കിലൊ തെച്ചി ഉം പിന്നെ താമര വേണോ പൂക്കളത്തിൻ്റെ നടുവിൽ വെക്കാൻ നല്ലതാണ് താമര ആ താമര ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് ഒരെണ്ണത്തിന് അമ്പത് രൂപ ഒരെണ്ണത്തിന് ആ താമര ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് ആ നാലെണ്ണം എടുക്കാം ആ നാലെണ്ണം ആ നല്ലതായിരിക്കും നാലെണ്ണം വെക്കുന്നത് ആ ആ പിന്നെ അരളി നമുക്ക് രണ്ട് കളറുണ്ട് വെള്ളയുണ്ട് റോസ്സുവുണ്ട് ഏതാ വേണ്ടത് അരളി ആ മഞ്ഞ ജമന്തി എത്ര കിലൊ വേണം ആ ആ ആ ആ ശരി വാടാമല്ലി എത്ര കിലൊ വേണോന്നാ പറഞ്ഞെ ആ ഒന്നര കിലൊ ആ ആ ശരി ഇത് ഇപ്പൊൾ കൊണ്ട് പോവാനാണോ അതോ പിന്നെ വന്ന് കൊണ്ട് പോവാനാണോ ഇപ്പത്തന്നെ കൊണ്ട് പോകാനാണല്ലേ ആ ശരി ഇല്ല കേടൊന്നും വരില്ല നല്ല പൂവാണ് ഒരാഴ്ചയ്ക്ക് കേടുവരില്ല ആ